ഏഴ് നാല് രണ്ടായിരത്തി ഒന്ന് എട്ട് നാല് രണ്ടായിരത്തി മൂന്ന് ആറ് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് നാല് ആറ് രണ്ടായിരത്തി ഒന്ന് എട്ട് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന്